കോഴിക്കോട് ജില്ലയില് കുറേ സ്ഥലങ്ങളുണ്ട് ശ്രദ്ധേയമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഉണ്ടല്ലോ എൻ്റെ പേർസണൽ ഒപ്പീനിയനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ബീച്ചിൽ പോയിരിക്കാനാണ് ബീച്ചിലാവുമ്പോൾ ഭയങ്കര കാം ആയിരിക്കും വൈകുന്നേരങ്ങളില് നമുക്ക് പോയിരിക്കുമ്പോൾ ഭയങ്കര റിലാക്സേക്ഷൻ കിട്ടും പിന്നെ സൂര്യോദയം കാണാം ഒത്തിരി ആൾക്കാരെ കാണാം പിന്നെ ആ മണലിൽക്കൂടി കുറച്ച് നേരം നടക്കാം അതൊക്കെയാണ് എനിക്ക് ഇഷ്ടം കേട്ടോ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പക്ഷേ അവിടെ മിഷ്കൽ മസീ മസ്ജിദ് സർഗലയ കേരളകലാ അങ്ങനെ ഒര് ഇതുണ്ട് അത് മുസ്ലീങ്ങളുടെ ഒരു ഇതാണ് കരകൗശല ഗ്രാമം ഉണ്ട് എസ് എം സ്ട്രീറ്റുണ്ട് ലോക്നാർക്കാവ് ക്ഷേത്രമുണ്ട് പിന്നെ ശിവക്ഷേത്രങ്ങളുണ്ട് ശിവ സ്റ്റാച്യു ഉണ്ട് പിന്നെ അതേപോലെതന്നെ നമ്മൾക്ക് മിഠായിത്തെരുവുണ്ട് അതൊക്കെ കാണേണ്ടതാണ് പിന്നെ നമ്മൾക്ക് കുറേ ബീച്ചുകൾ കുറേയുണ്ട് കാപ്പാട് ബീച്ചുണ്ട് നമുക്ക് ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് വേണമെങ്കിൽ റെയിൽവേ സ്ഥലത്ത് എന്നുവെച്ചാൽ റെയിൽവേ പോയിരിക്കണേ റെയിൽവേ പോയിരിക്കാം നമുക്കിഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോയിരിക്കാം അതൊക്കെ ഓരോത്തരുടെ ഇഷ്ടങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മിഷ്കൽ പള്ളി അതൊരു കുറേ വർഷങ്ങക്കു മുമ്പ് എത്രയോ നിലയായിട്ട് പണിതതാണത് അങ്ങനെയൊക്കെ ഉണ്ട് അതിന് ഓരോരുത്തർക്കും ഓരോന്നിനും ഓരോ ചരിത്രമുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം എസ് എം സ്ട്രീറ്റ് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതേപോലെതന്നെ മിഠായിത്തെരുവ് ഇഷ്ടമാണ് അതേപോലെ ബീച്ച് ബീച്ച് ചെന്നിരിക്കുന്ന ഭയങ്കര മനസ്സുഖമാണ് കേട്ടോ എനിക്ക്